ചേട്ടാ നമസ്കാരം ഞാൻ ഇന്നലെ അവിടെ നിന്ന് കോഴിക്കോടു നിന്ന് ഒരു പാലക്കാട് വരെ ഒരു കേബ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു പേര് രാഹുൽ എന്നാണ് അപ്പോൾ ഇന്നലെ അവർ വരാമെന്നു പറഞ്ഞ സമയത്ത് അവർ വന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പോവാനും പറ്റിയില്ല അവർ വന്ന സമയത്ത് ആണെങ്കിൽ എനിക്ക് ആ പോകേണ്ട ആവശ്യം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ കേബ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു എണ്ണൂറ് എണ്ണൂറ്റമ്പതു ഉറുപ്പിക ഞാൻ അഡ്വാൻസ് പേയ്മെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എൻ്റെ പേ ടി എം അക്കൗണ്ടിലേയ്ക്ക് നിങ്ങൾ ഏകദേശം കുറച്ച് എത്രയും പെട്ടെന്നുതന്നെ റീഫണ്ട് ചെയ്തു തരണം